ഹലോ റോളക്സ് ഹോട്ടൽ അല്ലേ ഞാൻ ഇപ്പം വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് പൊറോട്ടയും കറിയും പിന്നെ അതുപോലെത്തന്നെ ചില്ലി ചിക്കനും ബിരിയാണി ആണ് ഓർഡർ ചെയ്തത് അതിനകത്ത് നമുക്ക് ബിരിയാണി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്താണ് വെച്ചാൽ ബിരിയാണി ഇവിടെ ഞാൻ ഇപ്പം ഭൂരിപക്ഷം എടുത്ത് കഴിഞ്ഞപ്പം ബിരിയാണി ആർക്കും വേണ്ട എന്നാണ് പറയുന്നത് ഇപ്പം പൊറോട്ട ഉള്ള സാഹചര്യത്തിൽ ബിരിയാണി ആരും കഴിക്കുന്നില്ല അപ്പം നമ്മൾ വെറുതെ ഓർഡർ ചെയ്തിട്ട് അത് നാശമായി പോവുമല്ലോ വെറുതെ കളയേണ്ടി വരുമല്ലോ അതുകൊണ്ട് ആ ഓർഡർ ഒന്ന് ക്യാൻസൽ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് പിന്നെ അതിൽ പിന്നെ ഓർഡർ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം സമയത്തിന് തന്നെ അതിനകത്ത് ബിരിയാണി നിങ്ങൾ മറന്ന് പോവേണ്ട ബിരിയാണി എന്നുള്ള ആ ഒരു ഓർഡർ തന്നത് ഒന്ന് ഇപ്പം തന്നെ വെട്ടിയേക്ക് ആ ലിസ്റ്റിൽ നിന്ന് വെട്ടിയേക്ക് അല്ലെങ്കിൽ പിന്നെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോവും ദേ എന്താണ് പറയുക നമുക്ക് കൊണ്ട് പോവാൻ തിരിച്ച് തിരിച്ച് കൊണ്ട് പോവില്ലല്ലോ പിന്നെ നമ്മൾ അവിടെ നിന്നുതന്നെ ക്യാൻസൽ തിരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് കളയേണ്ടി വരും ഫുഡ് അതിനേങ്കാട്ടി നല്ലത് അത് അങ്ങ് വെട്ടിയേക്ക് കേട്ടോ അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്